വെല്ലുവിളികൾ സ്റ്റാമ്പുകളൊക്കെ കളക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാണയങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ കല്ലുകളൊക്കെ കണ്ടെത്തുമ്പോൾ ഉണ്ടാവാറുണ്ട് കാരണം ഇത്തരത്തിലുള്ളതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല ഇതൊക്കെ വ്യക്തിപരമായ ഓരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമൊക്കെയാണ് അപ്പം സ്റ്റാമ്പുകളൊക്കെ കളക്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വളരെ വലിയ പുച്ഛങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ചോദിച്ച് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ പൈസ കൊടുത്ത് കൂടുതൽ സ്റ്റാമ്പുകൾ വാങ്ങാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ വീടുകളിൽ നിന്നൊക്കെ ആണെങ്കിലും വ്യക്തിപരമായി എൻ്റെ പ്രായത്തിൻ്റെ ഇപ്പോഴൊന്നും ഇപ്പോൾ എനിക്ക് ഓക്കെയാണ് പക്ഷെ പണ്ടെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിലേ വാങ്ങിച്ചുവെക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം മുട്ടായി വാങ്ങിക്കാൻ കിട്ടുന്ന പൈസയൊക്കെ സ്റ്റാമ്പുകളും സ്റ്റാമ്പുകളും കല്ലുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴ് അവരുടെനിന്ന് നല്ല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചുവെക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് നിനക്ക് എന്നൊക്കെയുള്ള മനോഭാവങ്ങളൊക്കെയായിരുന്നു വീടുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ കല്ലുകളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും കല്ലുകളൊക്കെ മറ്റു കല്ലുകൾ നല്ല കടകളിലൊക്കെ വിൽക്കുന്ന വളരെ അലങ്കരിച്ചുവെച്ചിരിക്കുന്ന കല്ലുകളൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു കൊതി തോന്നുകയും നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മറ്റ് ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന പൈസയൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കാറൊക്കെയുണ്ട് അപ്പം നല്ല തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് സാമ്പത്തികമായും മാനസികമായും ബൗദ്ധികമായും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു തന്നെയാണ് ഇവയൊക്കെ സൂക്ഷിച്ച് ശേഖരിക്കുന്നത്